മലയാളഭാഷ നമ്മുടെ മറ്റുഭാഷകളെ എങ്ങനെയൊക്കെയാണ് പിന്നെ വികാസത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുണ്ടെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മലയാള ഭാഷാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്ന്നു വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ മാതൃഭാഷയാണ് മലയാള ഭാഷാന്നു പറയുന്നത് അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരുഭാഷ അതായത് നമ്മള് അതായത് നമ്മള് പരസ്പരം നമ്മള് പണ്ട് തൊട്ടേ അമ്മേൻ്റെയും അച്ഛൻ്റെ അടുത്തിന്നൊക്കെ പഠിച്ചു വരുന്നൊരു ഭാഷയാണ് നമ്മുടെ മലയാളംന്നു പറയുന്നത് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ഭാഷകളുടെ വികാസത്തിൽന്നു വെച്ചിട്ടുണ്ടെങ്കിലും വളരെ കൂടുതൽ അതായത് സ്വാധീനിച്ചിട്ടുള്ളൊരു ഭാഷന്നെയാണ് നമ്മുടെ മലയാള ഭാഷ കാരണംന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുതന്നെ മലയാള ഭാഷേനെ ഇപ്പോൾ എല്ലാവരും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നൊരാവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും ഇടേല് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷ എല്ലാരും അടിച്ചമർത്തി അതായത് നാലാളു കൂടുമ്പം നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ച് ആരും പറയാന് അതായത് പറയാൻ മടിക്കുന്നൊരു കാലമാണ് നമുക്കിപ്പോൾ വന്നോണ്ടിരിക്കുന്നത് ഇപ്പോൾ കുട്ടികളാണെങ്കിലും കൂടുതലായിട്ടും ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഭാഷകളൊക്കെ സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്